ഇപ്പോൾ നമ്മുടെ ഇവിടെ മുൻസിപ്പാലിറ്റികൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്തൊക്കെയാണെന്നു വച്ച് കഴിഞ്ഞാൽ മുൻസിപ്പാലിറ്റി മാത്രമല്ല അവിടെനിന്ന് നമ്മുടെ സർക്കാരിന്റടുത്ത് നിന്ന് നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ ഇടപെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ മെയിനായിട്ട് സർക്കാരിൻ്റെ സമ്മതത്തോടു കൂടി വേണം ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളെ കോഴിക്കോട് ജില്ലയിലും മുൻസിപ്പാലിറ്റികളൊക്കെ കൂടുതലായിട്ടും ടൗൺ കേന്ദ്രീകരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക ടൗണിൻ്റെ ആ ഒരു പ്രദേശങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അവർ ടൗണൊക്കെ നല്ല രീതിയിലുള്ള വൃത്തി ആക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇപ്പം സബ്സിഡിയോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നല്ല രീതിയിലവർ കൊടുക്കണമെങ്കിൽത്തന്നെ സർക്കാരിൻ്റെ അനുമതിയും കാര്യങ്ങളൊക്കെ വേണം സർക്കാരിൻ്റെ ഒപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല കാരണം ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഒരു വീട് നിർമ്മിക്കാമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല അപ്പം അതിന് സർക്കാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലു ലക്ഷം രൂപയാണെങ്കിലും നമുക്ക് നാല് ലക്ഷം രൂപയ്ക്കെന്തായാലും ഇപ്പോൾ ഈ ഇപ്പോഴത്തെക്കാലത്ത് എന്തായാലും വീടും കാര്യങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതിന് നല്ല രീതിയിലുള്ളൊരു ഫണ്ടും കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കണമെങ്കിൽ സർക്കാരിൻ്റെ സമ്മതത്തോടു കൂടി വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പലരീതിയിലുള്ള സേവനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയ്യുന്നുണ്ടെന്നു വേണമെങ്കിൽ പറയാം പിന്നെ പിന്നേയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും അഗ്നിശമന സേനകൾ കൂടുതലായിട്ടുള്ളത് ആ ഒരു മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചിട്ട് വേണം നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെയെന്നു വേണമെങ്കിൽ പറയാം